തീർച്ചയായും കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താജ്മഹല് തന്നെയാണ് കാണിക്കാൻ ആഗ്രഹിക്കുക കാരണം ഒരു സ്നേഹം തീർത്ത കൊട്ടാരമാണ് ഈ താജ്മഹൽ എന്നത് ഷാജഹാൻ മുംതാസിനു വേണ്ടി പണിതുകൊടുത്ത ഒരു കൊട്ടാരമാണ് സ്നേഹത്തിൻ്റെ ഒരു കൊട്ടാരമാണ് ഈ താജ്മഹൽ എന്നത് ഇത് പുറം ലോകങ്ങൾ കാണിക്കുകയാണ് ഇന്ത്യയിൽ നിന്നുമുള്ളൊരു സാധനം പുറം ലോകങ്ങളിൽ കാണിക്കുകയാണെങ്കിൽ താജ്മഹൽ തന്നെ കാണിക്കണമെന്നാണ് ഞാൻ പറയുന്നത്